എൻ്റെ പ്രദേശമെന്നു പറയുമ്പോൾ തൃശ്ശൂരാണ് തൃശ്ശൂര് സാംസ്കാരിക തലസ്ഥാനമാണ് നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂര് ഇവിടെ ഒരുപാട് കലകളുണ്ട് അതായത് ഇപ്പം ചാക്യാർകൂത്ത് ഓട്ടം തുള്ളൽ കഥകളി എല്ലാത്തിനും ഇവിടെ തൃശ്ശൂര് പ്രശസ്തമാണ് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാം ലളിത സാഹിത്യ അക്കാഡമി സംഗീത നാടക അക്കാഡമി എല്ലാം നമ്മുടെ തൃശ്ശൂരില് തന്നെയാണ് ഉള്ളത് നമുക്ക് ഇപ്പോൾ ഒരു ഡാൻസ് പഠിക്കണം നൃത്തം പഠിക്കണം എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂരിൽ എവിടെ പോയാലും നമുക്ക് നൃത്തം പഠിക്കാം അതേപോലെ സംഗീതം പഠിക്കണമന്ന് ഉണ്ടോ എവിടെ പോയാലും നമുക്ക് സംഗീതം പഠിക്കാം ഇതൊക്കെ പഠിപ്പിച്ചു തരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിന് വേണ്ടിട്ട് അക്കാഡമിസ് ഉണ്ട് അത് പോരാഞ്ഞിട്ട് ഓട്ടംതുള്ളൽ കഥകളി ചാക്യാർകൂത്ത് ഇതൊക്കെ പഠിക്കണമെന്ന് ഉണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് തൃശ്ശൂരിന്ന് കിട്ടും എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാം പിന്നെ അടുത്തത് പറയാൻ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ പൂരം ഇത്രയോളം ഗംഭീരമായിട്ട് നടത്തുന്ന വേറൊരു പൂരം വേറെ ഇല്ല തൃശ്ശൂർ പൂരം അത്രയും വലുതാണ് ഇവിടെ വരുന്ന ആനകളായാലും ഈ പൂരം അത്രയും വലിയൊരു പൂരം ആയതുകൊണ്ട് തന്നെ ഇവിടെ അന്നൊരു ദിവസം നല്ല തിരക്ക് ആയിരിക്കും പല പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാര് ഈ പൂരം കാണാൻ വേണ്ടി മാത്രം വരാറുണ്ട് അന്ന് ഇവിടൊരു ജനക്കൂട്ടമായിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ നല്ല പാടാണ് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ എത്രയോ ഒട്ടേറെ ആൾക്കാരിത് കാണാൻ വേണ്ടി വരാറുണ്ട് കാണാൻ തന്നെ അത് വലിയ രസമാണ് ആനചന്തം ഉണ്ടാകും നമ്മുടെ വടക്കുംനാഥൻ അമ്പലത്തിലാണ് വടക്കുംനാഥൻ ക്ഷേത്രത്തിലാണ് ഈ തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത് നമ്മുടെ തൃശ്ശൂര് ഏറ്റവും കൂടുതൽ പ്രശസ്തം ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ പേരും പറഞ്ഞാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളുടെ കേരളത്തിൻ്റെ ഒരു മുഖ്യമായ ഒരു മേഖ ഒരു പ്രദേശമാണ് നമ്മളുടെ തൃശ്ശൂര് അപ്പോൾ കല